കേരളത്തിൽ ഇപ്പോള് നോക്കേണെങ്കില് പണ്ടത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊന്നുമല്ല കാലാവസ്ഥയിൽ ഇപ്പോള് വലിയ വ്യതിയാനങ്ങളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അപ്പോള് കാലാവസ്ഥ നോക്കേണെങ്കില് ഇപ്പോള് ഭയങ്കര മഴയും തണുപ്പും വെള്ളപ്പൊക്കവും ഒക്കെയാണ് അതേസമയം നമ്മുടെ തമിഴ്നാടൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ നല്ല നല്ല ചൂടും ഒക്കെ അനുഭവപ്പെടുന്ന സമയമാണിത് അവിടെ വളരെ അവിടെ മഴകളൊന്നുമില്ല വലുതായിട്ട് വളരെ ചൂടും ക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് ബംഗാളൊക്കെ നോക്കേണെങ്കിൽ നല്ല തണുപ്പും നല്ല കൂടൽ മഞ്ഞൊക്കെയാണ് ഹിമാലയയിലൊക്കെ നോക്കാണെങ്കിൽ നല്ല മഞ്ഞും അടുത്തുപോലും പോകാൻ പറ്റാത്ത തണുപ്പൊക്കെയായിട്ടാണ് അപ്പോള് കാലാവസ്ഥയിൽ ഇപ്പോള് ഭയങ്കര വ്യതിയാനവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോള് കാലാവസ്ഥ പണ്ടത്തെപ്പോലെ ഒന്നുമല്ല ഇപ്പോൾ ഭയങ്കര മാറ്റങ്ങളൊക്കെയാണ് കാലാവസ്ഥയിൽ കണ്ടു വരുന്നത് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ തന്നെ പലതും തെറ്റിപ്പോവുകയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ അവർ പറയുന്നു ഇന്ന് മഴയായിരിക്കുമെന്ന് പക്ഷേ ഇന്ന് ഭയങ്കര ചൂടായിരിക്കും അവര് പറയുന്നു ഇന്ന് ചൂടായിരിക്കുമെന്ന് പക്ഷേ ഇന്ന് ഭയങ്കര മഴയായിരിക്കും ആ രീതിക്കാണ് ഇപ്പോള് കാലാവസ്ഥ മുന്നോട്ട് പോകുന്നത് അപ്പോള് കാലാവസ്ഥ ഇപ്പം വളരെ വ്യതിയാനം സംഭവിച്ചാണ് മനുഷ്യരുടെ പല അക്രമങ്ങള് കാരണം കാലാവസ്ഥ നല്ല വ്യതിയാനം സംഭവിച്ചു

നല്ല ചൂടായിരിക്കുകയാണ് ഇപ്പോള് പക്ഷേ ഈ തിരുവനന്തപുരം കേരള ഭാഗത്തൊക്കെ നോക്കിയാൽ ഭയങ്കര തണുപ്പും മൂടൽമഞ്ഞും ഒക്കെയാണ് ഈ ഒരു നിമിഷം വരെയും എന്നാൽ ബംഗാൾ ബീഹാർ അങ്ങനെ സ്ഥലങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ തണുപ്പും നല്ല കൂടൽ മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുതന്നെ വലുതായിട്ടൊന്നും അവിടെ നല്ലൊരു കാലാവസ്ഥയല്ല അപ്പോൾ പക്ഷേ അതേ സമയത്ത് നമ്മുടെ ജമ്മു കാശ്മീരിലൊക്കെ നോക്കേണെങ്കില് പറയണ്ട മഞ്ഞും മഞ്ഞും മാത്രമാണ് അവിടെ മൊത്തം മൂടൽമഞ്ഞു കൊണ്ട് മൂടിയിരിക്കുകയാണ് ആ പ്രദേശം മൊത്തം മൂടൽമഞ്ഞു കൊണ്ട് മൂടിയിരിക്കുകയാണ് ചില സമയത്ത് റെയ്നി സീസണാണ് ചില സമയത്ത് ചില സമയത്ത് മഴയും ചില സമയത്ത് വെയിലൊക്കെയായിട്ടാണ് നമ്മളെ ഗുജറാത്തില് കാണപ്പെടുന്നത് ചിലപ്പോൾ മാത്രം കുറച്ച് മഴയും ചില സമയത്ത് നല്ല വെയിലുമൊക്കെയായിരിക്കും പിന്നെ യു പി ഭാഗത്തൊക്കെ പോകാണെങ്കിൽ നല്ല മഴയും നല്ല മഴയും വെള്ളപ്പൊക്കവുമൊക്കെയാണ് പിന്നെ നമ്മളെ തെലുങ്കാന അങ്ങനെ ആ ഭാഗത്തൊക്കെ പോകുകയാണെങ്കിൽ പറയണ്ട നല്ല നല്ല വെറിയാണ് അവിട നല്ല വെയിലും നല്ല ഇതായിട്ട് പ്രവർത്തിക്കുന്നു പിന്നെ നമ്മളെ ഗോവ ആ ഭാഗത്തൊക്കെ പോയാൽ കടൽ വല്ലാതങ്ങ് ക്ഷോഭിക്കുന്നു ഭയങ്കര മഴയും ഭയങ്കര വെള്ളം ഇങ്ങ് കരയിലോട്ട് കേറിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് കാലാവസ്ഥ നല്ല തണുപ്പും നല്ല ചൂട് അല്ല സോറി നല്ല തണുപ്പും നല്ല മഴയൊക്കെയായിട്ട് അവിടങ്ങ് പോവേണ് പിന്നെ നമ്മുടെ പിന്നെ നമ്മളെ അരുണാചൽ പ്രദേശിൽ പോണേ പിന്നെ നല്ല മഞ്ഞ് മാത്രമാണ് അവിട കണ്ടുവരുന്നത് മഞ്ഞ് കാരണം മൂടൽ മഞ്ഞ് കൊണ്ട് നല്ല മൂടിയിരിക്കാണ് പിന്നെ നമ്മുടെ തമിഴ്നാട് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഭയങ്കര വെയിലും ഒക്കേയായിട്ടിരിക്കാണ് ആന്ധ്രാപ്രദേശ് പിന്നെ പറയേണ്ട ഭയങ്കര ഇത് ഭയങ്കര കൊടുങ്കാറ്റൊക്കെയാണ് അടിച്ച് ഭയങ്കര ഭയങ്കര കൊടുങ്കാറ്റൊക്കെയായിട്ട് ഭയങ്കര കാലാവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് പിന്നെ നോക്കാണെങ്കില് നമ്മുടെ ആസമിലൊക്കേണെങ്കില് വെള്ളം പ്രളയമായി കയറി സുനാമി അങ്ങനെ പല കാര്യങ്ങളും അവിടെ സുനാമിയല്ല വെള്ളം കയറി ആൾക്കാര് വീടിൽ നിന്ന് മാറി താമസിക്കേണ്ട അവസ്ഥയാണ് തിരുവനന്തപുരം അതായത് കേരളത്തിലെ തിരുവനന്തപുരം മൊത്തം വെള്ളം കയറിയിട്ടുണ്ട് ഏകദേശവും പാളയം ആ ഭാഗങ്ങളൊക്കെ വെള്ളം കയറി ഇതൊക്കെയുണ്ട് പിന്നെ നമ്മള് നോക്കേണെങ്കില് തിരുവനന്തപുരത്ത് തന്നെ നല്ല മഴയാണ് ഇന്ന് ഈയൊരു സമയം വരെയും നല്ല മഴയാണ് നല്ല മഴയും നല്ല തണുപ്പും ഒക്കെയാണ് ചില നല്ല വെള്ളം നല്ല വെള്ളമൊക്കെ കയറി നല്ല പ്രളയമൊക്കെ നടന്നൊരു സിറ്റുവേഷനോക്കെയുണ്ട് പിന്നെ നമ്മളെ ണ്ട് പിന്നെ നമ്മള് നോക്കേണെങ്കില് തിരുവനന്തപുരത്ത് തന്നെ നല്ല മഴയാണ് ഇന്ന് ഈയൊരു സമയം വരെയും നല്ല മഴയാണ് നല്ല മഴയും നല്ല തണുപ്പും ഒക്കെയാണ് ചില നല്ല വെള്ളം നല്ല വെള്ളമൊക്കെ കയറി നല്ല പ്രളയമൊക്കെ നടന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ മൊത്തത്തില് നോക്കേണെങ്കില് എപ്പോഴും മഴയൊന്നുമല്ല എല്ലാ സ്ഥലത്തും മഴയൊന്നുമല്ല ചില സ്ഥലങ്ങളിൽ മാത്രം മഴയും ചില സ്ഥലങ്ങളിൽ ഒക്കെ നല്ല ചൂടൊക്കെയാണ് എന്നാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ ചൂടു വന്നാൽ നല്ല ചൂടും തണുപ്പായാൽ പിന്നെ നല്ല തണുപ്പുമാണ് അതായത് സമ്മർ ചൂടുകാലമാണെങ്കില് അങ്ങ് വല്ലാത്ത ചൂടാണ് മഴക്കാലമാണെങ്കില് പിന്നങ്ങ് വല്ലാത്ത മഴയാണ്